പതിമൂന്ന് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പതിമൂന്ന് മെയ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടായിരം ആറ് ജൂലൈ രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ടായിരത്തി പന്ത്രണ്ട്